എൻ്റെ തോട്ടത്തിലേക്ക് ഞാൻ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാറുടെയടുത്തൊക്കെ എവിടെയുള്ള ഏതെങ്കിലും ബന്ധുവീട്ടിലോ അടുത്ത വീട്ടിലൊക്കെ പോവുമ്പോൾ അവിടെയൊക്കെ ചെടി ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ഫസ്റ്റ് പോവുക ചെടികളിലേക്കായിരിക്കും അപ്പം എല്ലാവരോടും റോസിൻ്റെ ഒരു കൊമ്പ് തരുവോ ചെമ്പരത്തിൻ്റെ ഒരു കൊമ്പ് തരുവോ അങ്ങനെ വാങ്ങിക്കും പിന്നെ കണ്ണൂരും നല്ലൊരു നേഴ്സറി ഉണ്ട് അപ്പോൾ കണ്ണൂരിൽ ഒക്കെ പോവുകയാണെങ്കിൽ ആ നേഴ്സറിയിൽ എൻ്റെ വീട്ടിനടുത്തുള്ള ഉള്ളോരു കുട്ടിയാണ് അവിടെ ജോലി ചെയ്യുന്നത് അപ്പം അവളുടെയടുത്ത് പറഞ്ഞു ഏൽപ്പിക്കുവായിരുന്നു പുതിയ ചെടിയൊക്കെ വരുകയാണെങ്കിൽ പറയണേ എന്ന് ചില സമയത്തൊക്കെ അവൾ അവിടെ നിന്നൊക്കെ അവൾക്ക് കിട്ടുന്ന ചെടിയൊക്കെ കൊണ്ടുത്തരും ഒന്നോ രണ്ടോ ഒക്കെ അവൾക്ക് പീസ് എക്സ്ട്രാ പോലെ ഒക്കെ കിട്ടിയെങ്കിൽ അതൊക്കെ എനിക്ക് കൊണ്ടുത്തരുവായിരുന്നു എനിക്ക് ചെടിയോടുള്ള കമ്പം കൊണ്ട് അല്ലെങ്കിൽ അവിടെ കണ്ണൂർ പോയിട്ട് ആവുമ്പോൾ അവളുടെ അടുത്തുനിന്ന് പൈസ കൊടുത്തിട്ടുതന്നെ വാങ്ങിക്കും അപ്പോൾ അതിന് വേണ്ട വളവും ഒക്കെ അവിടെനിന്നുതന്നെ വാങ്ങിച്ചിട്ട് എല്ലാം കൊണ്ടുവരും അതാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം മനോഹരമായിട്ട് എന്നാൽ എന്താണ് പറയേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആർക്കാണ് അല്ലേ പൂക്കളൊക്കെ ഇഷ്ടമല്ലാത്തത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ വളരെ അധികം സന്തോഷമാണ് ഇവിടെ ആരു വന്നാലും ചോദിക്കുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ ആരാണ് നട്ടത് എല്ലാവർക്കും അത്ഭുതമാണ് ഇത്രയും ചെടികളൊക്കെ കാണുമ്പോൾ നിറയെ എല്ലാം ഒരേ രീതിയിൽ വെച്ചിട്ട് ചെറിയ പത്തുമണി പൂക്കളൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ എല്ലാം ഒരു ആഞ്ചു പത്ത് പത്തിരുപത് ചട്ടിയൊക്കെ നിരത്തി നിരത്തി ഒരേപോലെ വയ്ക്കും അപ്പം പല കളറിലുള്ള പത്തുമണി പൂക്കൾ ഒന്നിച്ചിട്ടു ഉണ്ടായിട്ടുണ്ടാവും പിന്നെ റോസ് ചെമ്പരത്തി പിന്നെ മുല്ലപ്പൂവ് ഒരുപാട് തരം മുല്ല തന്നെയുണ്ട് ചക്ക മുല്ല അരി മുല്ല ചെറിയ മുല്ലയും ഒക്കെ പിച്ചി പോലത്തെ മുല്ലയും ഒക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും വന്നു ചോദിച്ചാൽ ഞാൻ കൊടുക്കും ചെയ്യും കേട്ടോ അടുത്ത വീട്ടിലെ അവർക്കൊക്കെ അങ്ങോട്ടും കൊടുക്കും അതുകൊണ്ട് തന്നെ അവരൊക്കെ നമുക്കും ചോദിച്ചു കഴിഞ്ഞാൽ തരും ഒരു കമ്പൊക്കെ